വിദ്യഭ്യാസം ചില പരമ്പരാഗത ആചാരങ്ങളെ നന്നായി ബാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസം കൂടുന്നതുകൊണ്ട് അനുസരിച്ച് ഇപ്പം പല ആചാരങ്ങളും നിന്നുപോയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഭർത്താവ് മരിച്ച് കഴിഞ്ഞ പിന്നെ ഭാര്യ വിധവയുടെ വേഷം ഒക്കെ വീട്ട് വീട്ടിൽനിന്ന് ഇറങ്ങാണ്ട് അങ്ങനെ കഴിയണമെന്ന് ഒക്കെയായിരുന്നു പണ്ടുള്ളത് പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ആൾക്കാര് അവരുടെ ജീവിതമാർഗങ്ങൾ തേടിയും അല്ലാതെയും അവരവരുടെതായ രീതിയിൽ ജീവിതം നയിച്ചു മുന്നോട്ടുപോകുന്നുണ്ട് അങ്ങനെ പലകാര്യങ്ങളും പണ്ടേ അനാചാരങ്ങളും ആചാരങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി പതുക്കെപതുക്കെ നിന്നു പോകുന്നുമായി കാണുന്നുണ്ട്